ഹലോ ഇത് കാസി കിച്ചണാണോ ഞാൻ വിളിച്ചത് എനിക്കൊരു ചിക്കൻ ബിരിയാണി വേണായിരുന്നു ഒന്ന് രണ്ട് പേർക്ക് വേണ്ടിയിട്ടാണ് വേണ്ടത് നമുക്ക് ചിക്കൻ ബിരിയാണി ഫുള്ളും ഹാഫും കാണുമോ ഫുള്ളാണെങ്കിൽ നമുക്കൊരു രണ്ട് പേർക്ക് ഫുള്ളും ഒരാള്ക്കൊരു ഹാഫും മതിയാവും അപ്പോള് നമുക്ക് സൊമാറ്റോ സ്വിഗ്ഗി വഴി നമുക്കിത് ഓർഡറെയ്യാൻ പറ്റിയതാണോ ഓക്കേ അപ്പോള് അങ്ങനെ ആണങ്കില് എനിക്ക് ഒരു ഉച്ചക്ക് ഒരു പന്ത്രണ്ടരയോട് കൂടിയാണ് നമുക്ക് സാധനം വേണ്ടത് അപ്പോള് ഇതൊന്നെത്തിച്ച് തരാമോ നമുക്ക് സ്ഥലമെന്ന് പറയുന്നത് പൊങ്ങന്താനമെന്നു പറയും കോട്ടയം പൊങ്ങന്താനമെന്നു പറയും അപ്പോള് അവിടെ അവിടെ അന്നേരത്തേക്കെന്നെ കോൺടാക്റ്റ് ചെയ്താല് മതി ഞാൻ ബാക്കി വിവരങ്ങള് പറഞ്ഞു തരാം അപ്പോഴൊരു പന്ത്രണ്ടരയോടു കൂടെ ഈ സാധനങ്ങൾ നിങ്ങൾ എത്തിച്ച് തന്നേക്കാവോ നമുക്കൊരു രണ്ട് ഫുൾ ചിക്കൻ ബിരിയാണിയും ഒര് ഹാഫ് ബിരിയാണിയാണ് വേണ്ടത് അപ്പോള് നിങ്ങളുടെ റേറ്റും കാര്യങ്ങളെങ്ങനെയാ ഹാഫിനും ഫുള്ളിനും എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഹാഫിനാണങ്കില് നൂറ്റി ഇരുപതും ഹാഫിനാണെങ്കില് എൺപത് രൂപ ഫുള്ളിനാണെങ്കില് നൂറ്ററുപത് രൂപ ഓക്കേ അപ്പോള് നമുക്കതിൻ്റെ കൂടെ മുട്ടയും അതുപോലെന്നെ സാലഡും പപ്പടവും അതെല്ലാം നമുക്ക് സെപ്പറേറ്റായിട്ട് തരുമല്ലോ ഓക്കേ ഓക്കേ അപ്പോള് നമുക്ക് ബിരിയാണി കൂടാണ്ട് നമുക്ക് മൂന്ന് ഷേക്കുകള് നമുക്കാവശ്യമുണ്ട് അപ്പോള് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കാമോ മൂന്ന് ഷേക്കുകൾ നമുക്ക് വേണം രണ്ട് ഷാർജയും ഒരു ചോക്ലേറ്റ് ഷേക്കും അത് എത്തിക്കുമ്പോള് ഒത്തിരി താമസിച്ച് കഴിഞ്ഞാല് അത് ഇതായി പോകുമല്ലോ അലിത്ത് പോകുമല്ലോ അപ്പോള് അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ നമുക്ക് പന്ത്രണ്ടരയോടുകൂടി ഒന്നെത്തിക്കാന് പറ്റുന്ന രീതിയിലൊന്ന് ചെയ്തേക്കാമോ പിന്നെ കൂടെ രണ്ട് മൂന്ന് പ്ലേറ്റും മൂന്ന് പേപ്പർ പ്ലേറ്റും കൂടെ ഒന്ന് എക്സ്ട്രാ ഒന്ന് കൊടുത്തുവിടണം കേട്ടോ